ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച ഒരു ജീൻസ് ഉണ്ടായിരുന്നു ബ്ലൂ ജീൻസ് ആയിരുന്നു ഞാൻ മേടിച്ചത് എനിക്കാ ജീൻസ് പക്ഷെ വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷ ഒരു കളർ ആയിരുന്നില്ല ആ ജീൻസിൽ ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞ സൈസ് എന്ന് പറയുന്നത് മുപ്പത്താറായിരുന്നു പക്ഷെ വന്ന സൈസ് എനിക്ക് പാകം കൂടിയായിരുന്നില്ല ഇങ്ങനെ മോശ അഭിപ്രായമാണ് അതിനെ കുറിച്ച് എനിക്ക് പറയാൻ ഉള്ളത് ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഡി ടെക്സ്റ്റർ ഒന്നും ആയിരുന്നില്ല ആ പാന്റിൽ ഉണ്ടായിരുന്നത് ജീൻസിൽ ഉണ്ടായിരുന്നത് പോരാത്തതിന് അതിൻ്റെ ഒരു ബക്കിളിനും പ്രശ്നം ഉണ്ടായിരുന്നു